ഹലോ ചേട്ടാ ഇത് കോഴിക്കോടുള്ള നടക്കാവിൽ നിന്നായിരുന്നു വിളിക്കുന്നത് ആ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടാരുന്നു നിങ്ങളുടെ റെസ്റ്റോറൻറ്റില് ഭയങ്കര അടിപൊളി ഫുഡാണെന്ന് കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ട് എൻ്റടുത്ത് ഇങ്ങനെ പറഞ്ഞു അവരിങ്ങനെ നിങ്ങളുടെ റസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിച്ചു ഭയങ്കര അടിപൊളി ഫുഡാണ് ഭയങ്കര ആംബിയൻസാണ് എന്നൊക്കെ ഇപ്പം ഞാൻ കുറച്ച് ബി വർക്കൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അവിടെ വന്ന് ആ ആംബിയൻസ് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല പക്ഷെ എനിക്ക് നിങ്ങളുടെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ്ന്ന് പറയുന്നത് ഓൾറൗണ്ട് അതായത് ഈ കോഴിക്കോടും അല്ലേല് എല്ലാ സിറ്റീസിലും നടന്ന് നല്ല ഫുഡ് കിട്ടുന്നതൊക്കെ വ്ളോഗ് ചെയ്യുന്നവരാണ് അപ്പം അവര് പറഞ്ഞേല് പറഞ്ഞു അവര് കഴിച്ചേല് ഏറ്റവും നല്ല ഫുഡ് കിട്ടിയ ഒരു പ്ലേസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഫുഡ് കിട്ടുന്ന സ്ഥലം ചേട്ടൻ്റെ ആന്ന് പറഞ്ഞു വെറൈറ്റി ഫുഡുകളാണ് ചേട്ടൻ അവിടെ പ്രിപ്പയറ് ചെയ്ത് കൊടുക്കുന്നേന്നു കേട്ടു അപ്പം എനിക്ക് ഭയങ്കരായിട്ട് താൽപര്യയുണ്ട് ചേട്ടൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവര് എക്സ്പെഷ്യലി പറഞ്ഞ ഒരു സാധനമാണ് ബാങ്കോക്ക് ഷവർമ നിങ്ങടെ അവിടുത്തെ ബാങ്കോക്ക് ഷവർമ ഭയങ്കര സൂപ്പറാന്നാണ് അവര് പറഞ്ഞത് അപ്പം ഇപ്പം എനിക്ക് ഫസ്റ്റ് ബാങ്കോക്ക് ഷവർമയും അവക്കാഡോ ജ്യൂസും ട്രൈ ചെയ്യാൻ താൽപര്യമുണ്ട് അപ്പം ഞാനെന്ന് പറയുന്നത് ഇവിടെ എൻ്റെ വീട് ഇവിടെ നടക്കാവ് തന്നെയാണ് അപ്പോൾ എനിക്കിപ്പം വരാൻ ഒരു കുറച്ച് തിരക്കുള്ളതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ചേട്ടൻ അത് എനിക്ക് ഹോം ഡെലിവറി ഒന്ന് ചെയ്തു തരാൻ പറ്റുവോ അതെ അതെ ഓക്കെ ഓക്കേ എപ്പത്തേക്ക് എത്താൻ പറ്റും ഓക്കെ പത്തര ആകുമ്പം അല്ലേ ചേട്ടാ എനിക്ക് എനിക്കിന്ന് പറയുമ്പം അതില് കൊറച്ച് കാര്യങ്ങള് ഇനി ആഡ് ചെയ്യാനുണ്ടായിരുന്നു അതായത് ബാങ്കോക്ക് ഷവർമ ആവുമ്പഴും കുറച്ച് നല്ലപ്പോലെ മയോണൈസും സോസും ഒക്കെ കുറച്ച് നല്ലപ്പോലെ ഇട്ടോ കാരണം എനിക്ക് അതിനോടും ആ ടേസ്റ്റ് എനിക്ക് കുറച്ച് കൂടുതലിഷ്ടാണ് മയോണൈസ് എന്തായാലും കുറച്ച് കൂടുതലിട്ടോ കാരണം എനിക്ക് മയോണൈസ് കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് ആ പിന്നെ കുറച്ച് ചി കുറച്ച് സ് സ്പൈസി ആക്കിക്കോ കാരണം എനിക്ക് സ്പൈസി ഫുഡ് കൂടുതലിഷ്ടായത് കൊണ്ടാണ് ആ ഓക്കെ ചേട്ടാ ഇതിനെത്രയാ റേറ്റ് വരുന്നത് അവര് പറഞ്ഞു നിങ്ങളുടെ ഇവിടെ റസ്റ്റോറൻറ്റില് ഭയങ്കര റേറ്റ് കുറവാണ് മോക്കോലാവ ഭയങ്കര റേറ്റ് കുറഞ്ഞ് നല്ല ഫുഡ് കിട്ടുന്ന ഒരു പ്ലേസാണെന്ന് നല്ല ആമ്പിയൻസാണന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് വന്ന് വന്ന് നിങ്ങടെ ഫുഡ് ട്രൈ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ തിരക്ക് കാരണം എനിക്ക് പറ്റാത്തെയാണ് പക്ഷെ ഡെഫിനിറ്റിലി എൻ്റെ തിരക്കൊക്കെ മാറുമ്പം എന്തായാലും ഞാൻ വന്ന് കഴിക്കും പക്ഷെ ഇപ്പ എനിക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈൻ ഓൺ ഓഫ്ലൈനായിട്ട് കൊണ്ടുത്തരണം ഞാനത് ഓർഡറ് ചെയ്യാൻ വേണ്ടീട്ടായിരിന്നു വിളിച്ചത് അതെ അതെ ബാങ്കോക്ക് ഷവർമയും പിന്നെ അവക്കാഡോ ജ്യൂസും ആണ് ഇപ്പം വേണ്ടത് പിന്നെ എന്തേലും വേണമെങ്കിൽ ഞാൻ ഓർഡറ് ചെയ്തോളാം ആ ഓക്കെ ഞാൻ അഡ്രസ്സെന്തായാലും ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തുതരാം ആ പിന്നെ ഞാൻ പറഞ്ഞല്ലൊ കുറച്ച് മയോണൈസും പിന്നെ ഇതും സ്പൈസിയാക്കി ഇട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല നോർമലായിട്ട് തന്നെ ഓക്കെ ചേട്ടാ താങ്ക്യൂ സോ മച്ച്